ഓട്ടോ ചേട്ടനല്ലേ ഞാനിവിടെ കോഴിക്കോടിൽ നിന്നാട്ടോ വിളിക്കുന്നത് ആ അതെ അതെ അപ്പോൾ എനിക്കൊന്ന് ബേപ്പൂര് വരെ പോവാനായിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും നിങ്ങള് ഓട്ടോ ഒന്ന് വരുമോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാണേ ആണോ ആ മൂന്നരക്കോ കുട്ടീൻ്റെ കുട്ടികളുടെ ഓട്ടമുള്ളത് ഓക്കെ നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും എത്താൻ പറ്റുമോ ചേട്ടാ ആ ആ ആ ആ അങ്ങനെയാണെങ്കിൽ ഒരു നാലര കറക്റ്റാകുമ്പോൾ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കവിടെ എത്താൻ പറ്റില്ലേ ആ ആ ആ അങ്ങനെയാണെ ചേട്ടനൊന്ന് വരുമോ ഈ നാലരയൊക്കെ ആകുമ്പോഴാത്തേക്കും എത്തിയാൽ മതിയായിരുന്നു ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ അപ്പോഴത്തേക്ക് വന്നാൽ മതി കേട്ടോ